മത്സ്യബന്ധനമെന്ന് പറയുന്നത് ഒരു വളരെ സാഹസികമായിട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ ഒരു ആരോഗ്യമുള്ള ആൾക്കേ മത്സ്യബന്ധനത്തിന് പോകാനുള്ളു അതായത് പരമ്പരാഗതമായ മത്സ്യബന്ധനം അതായത് ചെറിയ വള്ളത്തിലോ അല്ലെങ്കിൽ മറ്റ് ഇപ്പം ഇപ്പോഴെക്കെയാണെങ്കില് ഉന്തുവള്ളത്തില് പോയിട്ട് മത്സ്യബന്ധനം നടത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ എന്ന് പറയുന്ന അത് കാണാനോ അവര് കൊണ്ടുവരുന്ന മീനൊക്കെ കാണാനും നമ്മള് വാങ്ങിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സഹായിക്കുവാനായിട്ടും സാധിക്കും പിന്നെ ചെറു വള്ളങ്ങളിൽ പോയിട്ട് കായലുകളും പിന്നെ വളരെയധികം പിന്നെ തിരമാലകൾക്കിടയിൽ കൂടെ പോയി മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരേയും വളരെയധികം കൗതുകകരമായിട്ട് ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്